എല്ലായിടത്തും കല എന്നുള്ളത് വളരേ നല്ല രീതിയില് കൊണ്ടുപോവേണ്ടൊരു സാധനമാണ് അപ്പോള് കല എന്നൊരു കാര്യത്തില് പല സ്ഥലങ്ങളിലും നമ്മുടെ ഭൂമിയെ ഭൂമിക്ക് പ്രശ്നം വരുന്ന രീതികളിലുള്ള സാധനങ്ങളുണ്ടാവാം ഇപ്പോള് പെയ്ന്റ് ഒരെക്സാമ്പിളായിട്ടെടുക്കുകയാണെങ്കില് അത് ഭൂമിക്ക് വളരെ അപകടകരമായൊരു കാര്യമായിട്ട് മാറുന്നു അപ്പോള് അതൊക്കെ കലയില് നമ്മള് നല്ല രീതിയില് മാറ്റിക്കൊണ്ട് വരാന് ശ്രമിക്കണമെന്നാണ് ഞാന് പറയുക ഇപ്പോള് ഓര്ഗാനിക് പെയ്ന്റ്സെന്ന് പറഞ്ഞ് ലഭ്യമാണ് അതെപോലത്തെ പെയ്ന്റുകളുപയോഗിച്ച് നമ്മുടെ കലകളും ഒക്കെ വര്ദ്ധിപ്പിച്ച് കെടുക്കുക അതുപയോഗിക്കാന് ചിലപ്പോള് ബുദ്ധിമുട്ടുകളുണ്ടാവാം പക്ഷേ അത് പരിശീലിച്ച് അത് മാറ്റിയെടുക്കാന് ശ്രമിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല കുറേ രീതിയിലുള്ള പ്രശ്നങ്ങള് നമ്മുടെ ഭൂമിക്ക് കുറേ രീതിയിലുള്ള പ്രശ്നങ്ങള് ഇതേപോലെ വരുന്ന വേസ്റ്റില്നിന്നൊക്കെ ഈ കല എന്ന ഇതില്നിന്ന് ഉദ്ഭവിക്കുന്ന വേസ്റ്റില്നിന്നൊക്കെ നമ്മുടെ ഭൂമിക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് അപ്പോള് അതൊക്കെ മാറാന് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് എടുത്താല് വളരെ നല്ലൊരു കാര്യമായിട്ട് മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ കലയെന്ന് പറയുമ്പോള് പല രീതിയില് വരുന്നെങ്കിലും മിക്ക കലകളും നമ്മുടെ ഭൂമിയെ നല്ല രീതിയില് പ്രശ്നങ്ങളാല് ബാധിക്കുന്നതൊരു കാര്യമായിട്ട് പറയാന് പറ്റില്ല ഇപ്പോള് പാട്ടായാല്പ്പോലും നല്ലൊരു കാര്യമാണ് പക്ഷെയീ പാട്ടില്ത്തന്നെ നമുക്ക് പറയാം പാട്ടില് ഈ സ്പീക്കറുകള് ഒക്കെ ഉപയോഗിക്കുമ്പോള് അത് നല്ല രീതിയില് നോയ്സ് പൊല്യൂഷനൊക്കെ ഉണ്ടാക്കാന് ഇടയാകുന്നുണ്ട് അപ്പോള് അതൊക്കെ നല്ല രീതിയിലൊഴിവാക്കുകയോ കുറയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താല് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതേപോലെ പല കാര്യങ്ങളിലും നമ്മള് ചെയ്യുമ്പോള് വേസ്റ്റുകള് ഇടുന്നത് പരമാവധി കുറയ്ക്കാന് നോക്കിയാല് അത്രയും നല്ലതായിരിക്കും